ഫേസ് ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ തുടങ്ങിയ സാമൂഹികമാധ്യമങ്ങളിലിപ്പോൾ കണ്ടുവരുന്ന പല വാർത്തകളും എല്ലാം ശരിയാവണമെന്നില്ല വ്യാജവാർത്തകൾ ഒരുപാട് ഉത്ഭവിക്കുന്നുണ്ട് അത് വിശ്വസിച്ച് ഇരിക്കുന്ന പല ആളുകളും ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ ജീവിക്കുന്നുമുണ്ട് നമ്മുടെ അതായത് പുതിയ തലമുറ വളരെ കുറച്ച് മാത്രമാണ് അങ്ങനത്തെ വാർത്തകളിൽ വിശ്വസിക്കുന്നതെങ്കിൽ പോലും പഴയ തലമുറ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശന്മാർ അടങ്ങിയ പഴയ തലമുറ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ അങ്ങനെയുള്ള തലമുറകളിൽ ഉപയോഗിക്കുന്നവർ കാണുമല്ലോ അങ്ങനെയുള്ളവർ ഈ ഇത്തരം വാർത്തകൾ വിശ്വസിച്ച് അതിൽ ഓരോന്ന് കയറി നോക്കി ചില ലിങ്കുകൾ കാണും അതില് കയറി നോക്കി അങ്ങനെ അത് വായിക്കുന്ന സമയത്തായിരിക്കും അവർ പറ്റിക്കപ്പെടുന്നെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ നമ്മൾക്കിപ്പോൾ ഒരു വാർത്തയെക്കുറിച്ച് കൂടുതലായറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മള്ക്കിപ്പോഴൊരു വാർത്ത കണണമെന്നോ കേൾക്കണമെന്നോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളുപയോഗിക്കാതെ അത് ആ വാർത്ത അതായത് ശരിയായ വാർത്ത വരുന്ന വാർത്താ ചാനലുകൾ ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കണമെന്നാണ് എന്റെ ഒരഭിപ്രായം ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങൾ വഴി ഒരു പാട് വാർത്താ ചാനലുകൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തില് നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ആ നമുക്കാ കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനത്തുള്ള വാർത്താ ചാനലുകൾ വഴി വാർത്തകൾ കാണണമെന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണമെന്നാണ് എന്റെ ഒരഭിപ്രായം ഈ ഒരു സമൂഹ മാധ്യമങ്ങളെ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കില്ല അതിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ചില സമയത്തവർക്ക് അതിൻറ്റേതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് ഈ വരുന്ന വാർത്തകൾ സത്യമാവാനും സാധ്യതയുണ്ട് ഇത് ഒരിക്കലും പൂർണ്ണമായും സത്യം സത്യവുമല്ല പൂർണ്ണമായും ശരിയുമല്ല എന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത്